ഞാൻ സ്കൂൾ ഒത്തു ചേരലിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തിയാറ് രണ്ടായിരത്തിയേഴ് പത്താം ക്ലാസ് ബാച്ചിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവർ എല്ലാരും കൂടെ ഒത്തുചേർന്ന് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അന്നത്തേക്കാളും എല്ലാരും ഒരുപാട് മാറിപ്പോയിരിക്കുന്നു അവരുടെ എല്ലാം കുട്ടികളെയെല്ലാം കാണാൻ പറ്റി ഓരോരുത്തരും ഓരോ തൊഴിൽ മേഖലകളിൽ എത്തിപ്പെട്ടു അങ്ങനെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ അനുഭവങ്ങള് പങ്കിടാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിക്കാനും ഫ്രണ്ട്ഷിപ് പുതുക്കി കൊണ്ട് വരാനും പുതിയ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കാനും എല്ലാം സാധിച്ചു നല്ല രസമുള്ള ഒരു ഒത്തുചേരൽ ആയിരുന്നു പിന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ പരമാവധി നമ്മൾ കളയാണ്ട് എല്ലാരും ഇതിലൊക്കെ ഇൻവോൾവ് ആവുക കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ നില നിന്ന് പോവുന്നു ഇങ്ങനത്തെ ഗ്രൂപുകളിൽ കൂടെയും അങ്ങനെയൊക്കെ അപ്പോ നല്ല രസമുള്ള അനുഭവങ്ങൾ ആയിരുന്നു എല്ലാവരെയും വീണ്ടും കാണാൻ പറ്റിയല്ലോ അത്